വീട്ടു മുറ്റത്തും പൂന്തോട്ടത്തിലുമൊക്കെ നമ്മൾ പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് കാർണോമാരൊക്കെ ചെയ്തിരിക്കുന്നത് മനുഷ്യരുണ്ടാക്കിയ വിളവ് തന്നെ ഒരു പങ്ക് പക്ഷികൾക്ക് ജീവജാലങ്ങൾക്ക് വേണ്ടി വച്ചതിന് ശേഷം ബാക്കി നമ്മൾ മനുഷ്യർ വിളവെടുക്കുക ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പൂർണ്ണമായും മനുഷ്യൻ മൊത്തത്തിൽ മനുഷ്യൻ വിളവെടുക്കുന്ന ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെങ്കിൽ എന്റെ ഒരു നിർദേശം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തത് പോലെ തന്നെ ഒരു പങ്ക് ജീവജാലങ്ങൾക്കും മാറ്റി വച്ചതിന് ശേഷം ബാക്കി മനുഷ്യർ വിളവെടുക്കുക അപ്പോൾ നമുക്ക് അത് നമുക്ക് ഒരു സന്തോഷമാണ് ബാക്കിയുള്ള ജീവികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതൊരു ആയാസകരമായിരിക്കും പിന്നെയുള്ളതെന്ന് വച്ചാൽ വേനൽ കാലത്തൊക്കെ ആവുമ്പോൾ പക്ഷികൾക്ക് വെള്ളത്തിന് മെയിൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ നമ്മൾ പറമ്പിലും വീട്ടു മുറ്റത്തുമെല്ലാം ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക അപ്പോൾ പക്ഷികൾക്ക് അത് കൂടുതലായിട്ട് വെള്ളം കുടിക്കാനൊക്കെ സൗകര്യമായിരിക്കും പിന്നെ മുറ്റത്തൊരു ഫിഷ് ടാങ്ക് പോലെ ഒക്കെ കെട്ടിയാൽ അവർ വന്നിട്ട് അത് കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തോളും അത് അവർക്കൊരു നല്ലൊരു ആശ്വാസമായിരിക്കും പിന്നെ നമ്മൾ രാത്രിയത്തെ ഭക്ഷണം അല്ല രാവിലത്തെ ഭക്ഷണം ഒക്കെ ബാക്കി വരുകയാണെങ്കിൽ അത് വീട്ടുമുറ്റത്ത് മുറ്റത്ത് ഇടണമന്നില്ല പറമ്പിലൊക്കെ ഇടുകയാണെങ്കിൽ അതവർ കഴിച്ചോളും അപ്പോൾ അവർക്ക് അത് നമുക്ക് നഷ്ടവുമില്ല അവർക്ക് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്